ഹലോ ആ ഇത് കൂത്തുപറമ്പ് സീനത്ത് ഹോട്ടൽ അല്ലേ ചേട്ടാ ഞാൻ ആ ചേട്ടാ ഞാൻ ആ നേരത്തെ ഒരു അര മണിക്കൂർ മുന്നേ വിളിച്ചായിരുന്നേ ഞാൻ രണ്ട് ചിക്കൻ ബിരിയാണിക്കും നാലു നാനിനും മൂന്ന് ചപ്പാത്തിക്കും പിന്നെ മുട്ടക്കറിക്കും ഒരു മുട്ടക്കറിക്കും ഓർഡറ് ചെയ്തായിരുന്നു ആ ഓർഡറ് റെഡി ആയിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലല്ലേ പിന്നെ എനിക്കില്ലേ ഞാൻ ചിക്കൻ ബിരിയാണി രണ്ടെണ്ണമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് മൂന്ന് ചിക്കൻ ബിരിയാണി വേണം പിന്നെ നാല് നാനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആറ് നാന് വേണം ആ പിന്നെ മൂന്ന് ചപ്പാത്തി എനിക്ക് വേണ്ട എനിക്ക് ഒരു ചപ്പാത്തി മാത്രം മതി പിന്നെ മുട്ടക്കറി ഉണ്ടല്ലോ അത് എനിക്ക് രണ്ട് പാക്കറ്റ് വേണം ആ ഓർഡറ് ലേറ്റാവുകയൊന്നും ഇല്ലല്ലോല്ലേ ആ അല്ല വേറെ ദോശ ഉണ്ടോ അവിടെ ദോശ ഉണ്ടെങ്കിൽ രണ്ട് ദോശയും കൂടി എടുത്തോ ചേട്ടാ അതും കൂടി വേണമായിരുന്നു ലേറ്റാവുകയൊന്നും ഇല്ലല്ലോ അല്ലേ ഒന്ന് വേഗം വേഗമായിക്കോട്ടെ ശരിയെന്നാൽ